ഞാൻ ബൈക്കിൽ സന്ദർശിച്ച സ്ഥലങ്ങളെന്നു പറഞ്ഞാൽ ഇവിടെ അടുത്തുള്ള നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട് വീടുമായി അടുത്തുള്ള ദൂരം കുറവുള്ള സ്ഥലങ്ങളാണ് ഞാൻ ഒരു സോളോ ട്രിപ്പ് അടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ബുള്ളറ്റിൽ പ്രകൃതി നിറഞ്ഞ പ്രകൃതിയാൽ ഭംഗിയേറിയ ഒരു സ്ഥലത്തേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ഥലം തപ്പിക്കൊണ്ടാണ് കിട്ടിയിട്ടില്ല കിട്ടിയാൽ തന്നെ ഉടനെ തന്നെ പുറപ്പെടണം എന്നാണ് ആഗ്രഹിക്കുന്നത് അതുമായി ഞാൻ സന്ദർശിച്ചത് സന്ദർശിച്ചത് സ്ഥലങ്ങളെന്നു പറഞ്ഞാൽ ഇവിടെ ഇവിടെ അടുത്തുള്ള കുറച്ച് അധികം ദൂരമൊന്നും ഇല്ലാത്ത നമുക്ക് എഞ്ചോയ് ചെയ്യാം അത് കൂടുതലുണ്ടെങ്കിൽ എഞ്ചോയ് ചെയ്യാൻ പറ്റില്ല അതായത് ബൈക്കിൽ പോകണ സമയത്ത് എഞ്ചോയ് ചെയ്യണ പോലെയൊന്നും ഇപ്പോണ്ട് എഞ്ചോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ അങ്ങനത്തെ ഒരു എഞ്ചോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഉടനെത്തന്നെ കണ്ടുപിടിക്കണം ഉദ്ദേശിക്കുന്നത് പിന്നെ കൊറോണക്കാർ ലഡാക്ക് അപ്പോൾ ജമ്മുകാശ്മീർ അവിടേക്കൊക്കെ ബൈക്കായിട്ട് ബൈക്ക് സോളോ ട്രിപ്പ് അടിക്കാം അല്ലെങ്കിൽ ഒരു ബൈക്കും ഒരാൾ വെച്ചിട്ടിങ്ങനെ ഗ്രൂപ്പ് ഗ്രൂപ്പ് ട്രിപ്പൊക്കെ അടിക്കാറുണ്ട് അതുപോലൊക്കെയൊന്ന് പോകണം എന്നുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് പറയാനുള്ളത് ജമ്മുക്കൊക്കെ പോകണം പക്ഷേ അതിനുമുമ്പ് ഇവിടെത്തന്നെ ഉള്ള ധാരാളം സ്ഥലങ്ങളുണ്ട് പ്രകൃതിയാൽ ചുറ്റപ്പെട്ട് പ്രകൃതിയാൽ ഭംഗിയേറിയ ഭംഗിയേറിയ സ്ഥലങ്ങൾ അവിടെയൊക്കെ പോകണം എന്നാൽ ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പം ബൈക്കിൽ പോകുന്നതിൻ്റെ സുഖം കാറിൽ പോയാൽ കിട്ടില്ല അല്ലേ കാറില് നമ്മള് ഡ്രൈവറ്ണ്ടെങ്കി നമ്മളൊറങ്ങി പോവും നേരെ മറിച്ച് ബൈക്ക്ന്ന് പറഞ്ഞാ അങ്ങനെയല്ല നമ്മള് ഒറ്റയ്ക്ക് ഉണർന്നിങ്ങനെ പോകണം അതിൻ്റെ ഒരു രസം അത് വേറെ തന്നെയാണ് അപ്പം നിർദ്ദേശിക്കാനുള്ള സ്ഥലങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഒറ്റയ്ക്ക് ദൂരെ എവിടെയെങ്കിലും പോയാൽ ദൂരെ എവിടെയെങ്കിലും പോയാൽ മാത്രമാണ് ബൈക്കിൽ പോകുന്നതിന് സുഖം മനസ്സിലാവാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളിവിടെ അടുത്തുള്ള സ്ഥലങ്ങളിൽ പോയാൽ നമുക്കത്ര മനസ്സിലാക്കൻ കഴിയണം എന്നില്ല പിന്നെ യാത്രയെ സ്നേഹിക്കുന്ന ഒരാൾക്ക് ബൈക്കിൽ പോയാൽ കിട്ടുന്ന അത്ര വേറെ ഏത് വാഹനത്തിൽ പോയാലും കിട്ടില്ല ബസ്സിലാവട്ടെ അല്ലെങ്കിൽ വേറെ എന്ത് മറ്റെന്തെങ്കിലും ആവട്ടെ പക്ഷെ ബൈക്കിൽ പോകുമ്പോൾ അതിനു വേറെ സുഖം തന്നെയാണ് അടുത്തതായി ഞാൻ ഇങ്ങനെ ചുറ്റാൻ ഉദ്ദേശിക്കുന്ന ഞാൻ ഓരോ സ്ഥലം പറഞ്ഞു പിന്നെ മറ്റേ സ്ഥലം ജമ്മുകാശ്മീർ അതുപോലെത്തന്നെ ലഡാക്ക് പിന്നെ രാജസ്ഥാൻ അവിടേക്ക് പോകണം എന്നുണ്ട് ഒറ്റയ്ക്ക് മെയ്ക്ക് എ മേൻ ദൈവം തുണയ്ക്കുകയാണെങ്കിൽ ഇൻഷാ അള്ളാ അവിടെ പോകണം പിന്നെ നിങ്ങൾ പോകണം യാത്ര ചെയ്യണം യാത്ര ദൈവം അവൻ്റെ ഏടുകളിലൊക്കെ പറയുന്നത് യാത്ര ചെയ്യൂ എന്നുള്ളതാണ് കുറേ സ്ഥലങ്ങളിൽ കാണാൻ പറ്റും ദൈവം പറയുന്നത് യാത്ര ചെയ്യു യാത്ര ചെയ്യു എന്നുള്ളത് അപ്പോൾ ഞമ്മൾ യാത്ര ചെയ്യണം ഇങ്ങനെയാണ് ബൈക്ക് മേലെ അല്ലെങ്കിൽ എങ്ങനെയാണെന്നു വച്ചാൽ